എല്ലാവരും ആഗ്രഹിക്കുന്നത് റെസ്റ്റോറൻറ്റുകളിൽ പോയി നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ റെസ്റ്റോറൻറ്റുകളെല്ലാ ബിസിനസ്സ് മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത് നല്ല ഭക്ഷണം അന്വേഷിച്ച് മലയാളികൾ പല സ്ഥലങ്ങളിലും പോയി പല വിഭവങ്ങൾ കഴിക്കുകയും വൃത്തിയുള്ള സാഹചര്യങ്ങളുള്ള റെസ്റ്റോറന്റുകൾ അവര് നോക്കി പോകുകയും ചെയ്യുന്നു അങ്ങനെ ഉള്ള ഈ സമയത്ത് എല്ലാവരും റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞാല് ബിസിനസ്സ് മൈൻഡായി മത്സരമായി റെസ്റ്റോറൻറ്റുകൾ മാറുന്നു ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ നല്ല ആഹാരം ലഭിക്കുക തന്നെ വേണം അതിനു വേണ്ടിയിട്ടാണ് രുചിയുള്ള ആഹാരം തേടി നല്ല നല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് അവിടെ പാചകം ചെയ്യുന്നതെല്ലാം കാണുവാനുള്ള സൗകര്യം ചില റെസ്റ്റോറൻറ്റുകളിലുണ്ട് അവിടത്തെ വൃത്തിയും വെടിപ്പും നമുക്ക് അന്നേരം മനസ്സിലാക്കാന് സാധിക്കും അതിനാൽ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലേക്ക് പോകുമ്പോള് അവിടത്തെ എല്ലാ കാര്യങ്ങളും നോക്കി വേണം പോകാൻ അല്ലെങ്കിൽ നമ്മൾ വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിച്ച് പലവിധ അസുഖങ്ങൾ നമുക്ക് കടന്നുവരികയും ഭക്ഷണം ശരിക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനോടുള്ള വെറുപ്പ് നമുക്ക് തോന്നുകയും ചെയ്യും അങ്ങനെ വരാതിരിക്കാന് വേണ്ടി നമ്മൾ ഓരോ റെസ്റ്ററൻറ്റുകളിലേയും പരിശോധിച്ച് നല്ല റെസ്റ്റോറൻറ്റാണെന്ന് തിട്ടപ്പെടുത്തി നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം അവിടന്ന് കിട്ടുന്നുവെന്ന് അറിയിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാവൂ അത് നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിനും ഏറ്റവും ഉത്തമവും യോജിച്ചുമായ ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹമായി മാറിപ്പോകും ഇത്രയുമാണ് റെസ്റ്റോറൻറ്റുകൾക്ക് നമുക്ക് കൊടുക്കുവാനുള്ള നിർദ്ദേശം